എനിക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു മീശോ വഴി വാങ്ങിച്ച ഒരു ജീൻസ് ജീൻസെന്നു പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഒരു ആഷ് പോലത്തെ കളർ ജീൻ്റെ ജീൻസായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത് പക്ഷേ അത് എണ്ണൂറ് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ജീൻസ് അതിൻ്റെ പകുതി പൈസക്കു പോലുള്ള കോളിറ്റി അതിനുണ്ടായിരുന്നില്ല ആദ്യത്തെ വാഷിലാണെങ്കിൽ പോലും ഇടുമ്പോൾ പോലും അതിന് ജീൻസിൻ്റെതായിട്ടുള്ള ഒരു കട്ടിയോ ഫാബ്രിക് ഒട്ടും ശരിയല്ലായിരുന്നു പിന്നെ അത് കഴുകുമ്പോൾ ഓ ഫസ്റ്റ് വാഷിൽ തന്നെ അതിൻ്റെ കളർ ഫുള്ള് ഇളകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ കൊടുത്ത പൈസക്ക് അത് ഒട്ടും വെർത്തല്ലായിരുന്നു മീശോ വഴി വാങ്ങിച്ചതിൽ ഇതുവരെ ഇത്രയും നാളായിട്ട് ഞാൻ ഡ്രസ്സെസോ കാര്യങ്ങളും എല്ലാം വാങ്ങിക്കുന്നുണ്ട് മീശോയിൽ നിന്ന് പക്ഷേ ഇതുപോലൊരു മോശം അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത് മീശോയിൽ നല്ല റിവ്യൂവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് തന്നെ ആയിരുന്നു ഞാൻ ഓഡർ ചെയ്തത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ ജീൻസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും മോശമായിരിക്കും എന്ന്